സാമൂഹ്യ മാധ്യമങ്ങളുടെ യൂസ് അങ്ങനെ ഒരുപാടങ്ങനെ കണ്ടൻ്റുകളൊന്നും ഇടാറില്ല ഇടാറുണ്ടെങ്കിൽ തന്നെ അത് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും മാത്രമേ ഇടാറുള്ളൂ അതിൻ്റെ രണ്ടിൻ്റെ യൂസാണ് കൂടുതലും വരുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ യൂസാണ് കൂടുതലും വരുന്നത് ഫേസ്ബുക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇൻസ്റ്റഗ്രാമിലാണ് ഇപ്പോഴും ഇടുന്നത് അതെന്നു പറഞ്ഞ് കണ്ടൻ്റുകൾ എന്തു തരം കണ്ടൻ്റുകളാണെന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ ഫോട്ടോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണിടുന്നത് അല്ലാതെ വേറെ വല്ല എന്താ അല്ലാത്ത രീതിയിലുള്ള കണ്ടൻറ്റ് ക്രിയേഷനൊന്നുമില്ല എൻ്റെ എൻ്റെ ഫോട്ടോസും വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണിടാറ് പിന്നെ പ്രൈവസി ആ അത് സോഷ്യൽ മീഡിയയുടെ പ്രൈവസീനെ കുറിച്ച് ഉറപ്പായിട്ട് പിന്നെ പേടിയുണ്ടാകും കാരണം എന്താ ആരൊക്കെയെന്ന് ആരൊക്കെയാണ് കാണുന്നു അവരൊക്കെയത് എങ്ങനെയൊക്കെ എന്താ എടുക്കാമെന്ന് എന്തൊക്കെ ഉപയോഗം അവർക്ക് ദുരുപയോഗം ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അതിനെ കുറിച്ചൊക്കെ പേടിയുണ്ട് എന്നാലും നമ്മളങ്ങിടുന്നു പിന്നെ ആ പ്രൈവറ്റൊക്കെ പ്രൈവറ്റായിട്ടാണ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് കൂടുതൽ ആ വാട്സപ്പിലാണെങ്കിലും നമുക്കറിയാവുന്ന കോൺടാക്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ഉള്ളൂ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും കൂടുതലും നമുക്ക് പരിചയമുള്ളവർ ഒക്കെയാണ് പിന്നെ ഇതിൻ്റെയൊക്കെ സ്വകാര്യത പ്രൈവസി പ്രൈവസീനെ കുറിച്ച് നല്ല പേടിയുണ്ട് വലിയ പിന്നെ നമ്മളൊരുപാട് എന്താ പറയുക പരിചയമില്ലാത്തവരെയൊന്നും ആ അടുപ്പിക്കാണ്ടിരിക്കുകയെന്നുള്ളതേ ഉള്ളൂ

വലിയ എന്താ എൻ്റെ ഫോട്ടോസൊക്കെ തന്നെയാണ് ഇടുന്നത് അല്ലാതെ വേറെ വലിയ കണ്ടൻറ്റ് ക്രിയേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല യൂട്യൂബിലാണെങ്കിലും വലിയ യൂസൊന്നും ഇല്ല യൂട്യൂബിൽ അങ്ങനെ ചാനലോ അങ്ങനെയൊന്നുമില്ല ഇൻസ്റ്റഗ്രാമിലാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് വാട്സപ്പിലും ജസ്റ്റ് യൂസ് അത്രയേയുള്ളൂ

പ്രത്യേകിച്ച് ഉള്ളടക്കം ഒന്നും സമൂഹ മാധ്യമങ്ങളിൽ ഇടാറില്ല നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഇതൊക്കെ ഉള്ളൂ പിന്നെ ആ സോഷ്യൽ മീഡിയ നമ്മൾ ഒരുപാടൊരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു കാര്യം അറിയില്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് കാര്യങ്ങളറിയാനും നമ്മളുടെ നോളഡ്ജ് ഇമ്പ്രൂവാക്കാനും സോഷ്യൽ മീഡിയ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് പിന്നെ ആ ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും തന്നെ സോഷ്യൽ മീഡിയ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് നമുക്ക് ഇപ്പം അത്രക്ക് സോഷ്യൽ മീഡിയേടെ യൂസ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും തന്നെ സോഷ്യൽ മീഡിയ ഇല്ലാണ്ട് പറ്റില്ലാത്തൊരു സിറ്റുവേഷൻസ് വരെ ഉണ്ടെന്ന് അത് മോശമായിട്ടും ഹെൽപ്ഫുള്ളായിട്ടും നല്ലതായിട്ട് നമുക്കുപയോഗിക്കാൻ പറ്റും അത് നമ്മൾ യൂസ് ചെയ്യുന്നതിറ്റൊരിതാണ് പിന്നെ പ്രൈവസിയെന്നൊക്കെ പറയുന്നത് പേടിയുണ്ട് കാരണം ഓരോരുത്തർ ദുരുപയോഗം ചെയ്യുന്നവരും കുറേ പേരുണ്ട് സോഷ്യൽ മീഡിയേനെ എന്നാൽ അങ്ങനെ ഇല്ലാത്തവരുമുണ്ട് അപ്പം അതനുസരിച്ചൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ ആ അത്രയേയുള്ളൂ